നമ്മളില്പ്പെട്ട കുറേയാളുകള് ദീർഘദൂര ഓട്ടത്തിന് അതായത് മാരത്തോണ് ഓട്ടത്തിന് പങ്കെടുത്ത കുറേ ആളുകളുണ്ടാകാം അപ്പോള് അപ്പോള് ഈയൊരു ഇതില് നമുക്കെന്ത് നോക്കാം അവര് എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ എങ്ങനെയൊക്കെയാണ് അവര് തയ്യാറെടുക്കുകയെന്നുള്ളത് അവരുടെ അനുഭവത്തില് നിന്നുതന്നെ നമുക്ക് നോക്കാം ഇപ്പോഴിതില് പ്രത്യേകമായിട്ട് പറയുന്നത് എസ്പെഷ്യലി പറയുന്നത് ആറ് കാര്യങ്ങളാണ് ആറ് തയ്യാറെടുപ്പുകളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതല് പ്രിഫർ ചെയ്തിട്ടുള്ളത് അപ്പോള് ഒന്നാമതായിട്ട് സ്ഥിരമായിട്ടുള്ള പരിശീലനം കണ്ടിന്യുയസ് ആയിട്ട് കൺസിസ്റ്റൻറായിട്ട് നമ്മളെന്തുചെയ്യണം ട്രെയിൻ ചെയ്യണം ഒരാള് ഒരു മാരത്തോൺ ഓടാൻ തീരുമാനിച്ചാല് ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങേണ്ടത് പരിശീലനം തന്നെയാണ് ഉം ഓരോ ദിവസവും ഏതെങ്കിലും കുറച്ചെങ്കിലും ഏതെങ്കിലും കുറച്ചെന്നല്ല ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് ഓടുന്ന ശീലം നമ്മളുണ്ടാക്കണം നമ്മള് എന്തുകൊണ്ടും നമുക്ക് നല്ലയൊരു മുന്നേറ്റമായിരിക്കും ഉം കാരണം ഒരു ഒരു ഒരു ദിവസം കുറച്ചേയുള്ളൂവെങ്കില് അടുത്ത ദിവസം കുറച്ച് കൂട്ടുക അങ്ങനെ അങ്ങനെ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൂട്ടി ഇതിങ്ങനെ കൂട്ടി വരുന്നത് ഓട്ടത്തിന്റെ ദൂരങ്ങളിങ്ങനെ കൂട്ടി വരുന്നത് എന്തുകൊണ്ടും നല്ലയൊരു ഇതായിരിക്കും പ്രാക്ടീസ് മേക്ക് പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ എന്നാണ് ഒരു ചൊല്ലുള്ളത് ഇപ്പോള് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ശരിയായിട്ടുള്ള ഡയറ്റാണ് ഇതില് ഈ ഓടുന്നയാള്ക്ക് കാർബോഹൈഡ്രേറ്റ് ഒരു മത്സരാര്ത്ഥിക്ക് കാർബോഹൈഡ്രേറ്റുകള് നല്ലതാണ് ശരീരത്തില് എനർജി നിലനില്ക്കാന് കാർബോഹൈഡ്രേറ്റുള്ള ഭക്ഷണം കഴിക്കണം അതേപോലെ തന്നെ പ്രോട്ടീന് ഈ ശരീരത്തിൻ്റെ പേശികളൊക്കെ ഒന്നുകൂടെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം തന്നെ കഴിക്കേണ്ടി വരും ഡീഹൈഡ്രേഷൻ എന്നുള്ളത് ഒരു മാരത്തോണിന്റെ അതായത് ഒരു ഓട്ടക്കാരന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഡീഹൈഡ്രേഷൻ അതായത് ജലാംശമില്ലാതിരിക്കല് എന്തുചെയ്യാം കണക്കാക്കുന്നത് ഇനി മറ്റൊരു സാധനമെന്താണ് ഉറക്കം നല്ല പ്രോപ്പര് ആയിട്ടുള്ള റെസ്റ്റ് വേണം എന്നാലേ ഒരു കുറഞ്ഞത് ഏഴെട്ട് മണിക്കൂറെങ്കിലും എന്ത് വേണം ഉറക്കം വേണം റസ്റ്റ് വേണം എന്നാലേ അവര്ക്ക് നല്ലതുപോലെ എന്ത് ചെയ്യാന് പറ്റൂ ഒരു ഓടാനൊക്കെയുള്ളൊരു ശക്തിയും ഒരു മനാരോഗ്യമൊക്കെ ഉള്ളില് നിന്ന് വരികയുള്ളൂ അതുപോലെത്തന്നെ മറ്റൊരു കാര്യമാണ് ശരിയായിട്ടുള്ള ഷൂസ് അതായത് ഒരു കുഴപ്പവുമില്ലാത്ത ഷൂസ് അതുപോലെ തന്നെ ഡ്രസ്സ് ഇതൊക്കെ ഇതിലൊക്കെ ചിലപ്പോള് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മകളേയുണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യും അവരുടെ മത്സരത്തിനെ എന്തുചെയ്യും ബാധിക്കുമെന്നുള്ളതാണ് പിന്നെ അഞ്ചാമതായിട്ട് ഇതില് പറയുന്നത് മെൻറൽ പ്രിപ്പറേഷൻ നമ്മള് മാനസികമായിട്ട് നല്ലവണ്ണം തയ്യാറായിരിക്കണം അത് ഈയൊരു കായിക കായികമായി മാത്രമല്ല കാരണം എന്താണ് ഈ ഓടുന്ന വഴിയില് ഇയാള്ക്ക് ചിലപ്പോള് ക്ഷീണമുണ്ടാകാം ബുദ്ധിമുട്ടുണ്ടാകാം ഇതിനൊക്കെ പകരമായിട്ട് എന്തുചെയ്യാം മാനസികമായിട്ട് ഇയാള് നല്ല കോൺഫിഡൻറ് ആയിരിക്കണം പിന്നെ ആറാമത് പറയുന്നത് ഹാർഡ് ട്രെയിനിങ്ങും റസ്റ്റും തമ്മിലുള്ള ബാലൻസ് അപ്പോള് ഒരേസമയം നല്ല കൂടുതല് ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാലോ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യവുമില്ല ഉം രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം ഇവരുടെ ഒരു ലോങ് രണ്ണിന്റെ ഒരാളുടെ പ്രിപ്പറേഷന് ഓക്കെ